ആ ഇവിടെയൊക്കെ സ്കൂളുകളിൽ പോകാനാട്ടങ്ങനെ യാത്ര ബുദ്ധിമുട്ടൊന്നുമുള്ള ഏരിയ പ്രദേശങ്ങളല്ല ഞങ്ങളുടേ ഈ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോയി പഠിക്കാനൊക്കെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് ബസ് സർവ്വീസുണ്ട് ബസ്സുകളുണ്ട് സ്കൂൾ ബസ്സുകളുണ്ട് അല്ലാതെയുള്ള ലൈൻ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഉണ്ട് സ്റ്റേറ്റ് ബസ്സുകൾ എല്ലാം ഉണ്ട് അതു കൊണ്ട് അങ്ങനെ സ്കൂളിൽ പോകാൻ പോയി പഠിക്കാൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല കുട്ടികൾക്കു പോയി പഠിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ കുട്ടികളും തന്നേ ലൈൻ സ്കൂൾ ബസ്സുകളും അതു പോലെ തന്നെ ലൈൻ ബസ്സുകളെയൊക്കെ ഉപയോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്കൂൾ കുട്ടികൾ കൂടുതലും തന്നെ ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിനിവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് ഇവിടെ നല്ല നിലവാരമുള്ള സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല സ്കൂളുകൾ മാനേജ്മെൻറ്റ് സ്കൂളുകളും ഗവൺമെൻറ്റ് സ്കൂളുകളൊക്കെ ഉണ്ട് പഠിക്കാൻ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ നല്ല സ്കൂളുകളും നല്ല സ്റ്റാ നിലവാരമുള്ള ടീച്ചേഴ്സ് അദ്ധ്യാപകരും അതുപോലെതന്നെ അവർക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇവിടെ മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ ഇവിടെ ഇല്ലാ അതു കൊണ്ട് സ്കൂളിൽ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ വിടാനൊക്കെ ഈ ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള മറ്റ് വെല്ലുവിളികളൊന്നും ഇല്ല വലിയ പുഴകളോ തോടുകളോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചകലെയാണ് ഡാമും ഇടുക്കി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നതു കൊണ്ട് അങ്ങോട്ടൊക്കെ ആ ആ പ്രദേശത്തോട്ടൊന്നും പോകേണ്ട ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള എല്ലാം നല്ല നല്ല റോഡുകളും നല്ല സ്കൂളുകളും നല്ല സൗകര്യങ്ങളും എല്ലാമുണ്ട് ഇഷ്ടം പോലെ ബസ് സർവ്വീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടിവിടെ പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല

ഒക്കെ സംവിധാനങ്ങളുണ്ട് പിള്ളേർക്കങ്ങനെ നടന്നു പോയി കഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എല്ലാവരും തന്നെ ബസ്സൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ അവർക്കങ്ങനെ വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ ഒരു സ്ഥലത്ത് കുട്ടികൾക്കു പോയി പഠിക്കാനുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാകും അത് സ്വാഭാവികമാണല്ലോ കാരണം ദൂരെ പോയി പഠിക്കുമ്പം അത്രയും അധികം സമയം ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ വരുന്നതേയുള്ളൂ അല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല സ്കൂളിൽ പോകാനായിട്ട് ബസ് സർവി ബസ് സർവ്വീസ് ഉള്ളതു കൊണ്ടും സമയത്ത് സ്കൂളിൻ്റെ സമയത്ത് തന്നെ സ്കൂൾ വിട്ട് വരാനും സ്കൂളിലേക്കു പോകാനും ആ സമയങ്ങളിലൊക്കെ ബസ്സുണ്ട് അതു കൊണ്ട് അങ്ങനെ പോയിട്ട് വരാറുണ്ട് കുട്ടികൾ പോയിട്ട് വരുന്നു പിന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബസ്സിന് ബസ്സിനുള്ളത് സ് അവർക്ക് പൈസ ഇളവ് ചെയ്ത് ഒക്കെ കൊടുക്കുന്നുണ്ട് ബസ്സുകാർ സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് പൈസയൊക്കെ ഇളവ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ ടിക്കറ്റിനേക്കാളൊക്കെ ടിക്കറ്റ് കുറച്ചു കൊടുത്താൽ മതി കുട്ടികൾക്ക് അതു കൊണ്ടവരങ്ങനെ പോയി പഠിച്ചിട്ടൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലാ പിള്ളേർ നല്ല രീതിയിലാണ് ബസ്സൊക്കെ യൂസ് ചെയ്യുക ഉപയോഗിച്ച് പോയിട്ട് വരുന്നത് മറ്റ് പ്രയാസങ്ങളൊന്നു അവർക്കിവിടെയില്ല പ്രയാസങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഉൾ ഗ്രാമങ്ങളും അതു പോലെ തന്നെ ഒത്തിരിപ്പുഴകളും അങ്ങനെ ദുർഘടം പിടിച്ച ഏരിയാസൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല പിള്ളേരെല്ലാവരും നന്നായിട്ട് സ്കൂളിൽ പോയിട്ടൊക്കെ വരാൻ പറ്റുന്നുണ്ട് ബസ്സുകളുണ്ട് ഇഷ്ടം പോലെ